ഞാൻ നീന്തി കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലുകളിലെ മസിൽ വേദനിക്കുകയും അതിലൂടെ മുങ്ങി പോകുന്ന രീതിയില് വരെ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനെ അതി ജീവിച്ച് നീന്തി കയറിയിട്ടുണ്ട്